ഹലോ സാഗർ റെസ്റ്റോരൻ്റല്ലേ കോഴിക്കോടുള്ളേ ആ ഓക്കെ ഓക്കെ അപ്പം ഞാൻ അവിടെ നിന്ന് കുറച്ച് ഫുഡ് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നേ അപ്പം അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പം അതായത് കാപ്പാട് ആ ഭാഗത്താണ് ഉള്ളത് അപ്പം അവിടത്തേക്ക് നിങ്ങൾക്ക് ഡെലിവറിയും കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആയിരുന്നു ആ ഓക്കെ ഓക്കെ അപ്പം നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഒന്ന് എനിക്ക് പരിചയപ്പെടുത്തുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ ഇങ്ങനെ വിളിച്ച് ബുദ്ധിമുട്ടിക്കില്ലായിരുന്നു കാരണം ഞാൻ ഇപ്പോൾ ഇടക്ക് ഇടക്കായിട്ട് നിങ്ങളെ ഞാൻ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഒക്കെ പരിചയപ്പെടുത്തുകയാണെങ്കിൽ അതിനകത്ത് ഞാൻ നേരിട്ട് നമുക്ക് ഓർഡർ ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ പറ്റുമല്ലോ ആ ഓക്കെ ഓക്കെ ആ ആ അതായത് സാഗർ റെസ്റ്റോറന്റ് അല്ലേ ഓക്കെ ഓക്കെ ആ ആ പ്ലേ നിങ്ങൾ ലിങ്ക് ഇട്ടുതരുമോ ഓക്കെ ആ എന്നാൽ ലിങ്ക് ഒന്ന് ഇട്ട് തരികയാണെങ്കിൽ ഞാൻ അതിനകത്ത് ചെയ്തോളായിരുന്നു അപ്പോൾ അതിൽ നമുക്ക് അറിയാൻ പറ്റുമല്ലോ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് ഡെലിവറി അവൈലബിൾ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതിനകത്ത് നോക്കാൻ പറ്റുമല്ലോ ഓക്കെ ഓക്കെ ആ അങ്ങനെ ആണെങ്കിൽ ആ ലിങ്ക് ഒന്ന് ഇട്ടു തന്നെ ഞാൻ ആ ആപ്പിൽ ഞാൻ നോക്കിയിട്ട് ഇങ്ങോട്ടേക്ക് ഡെലിവറി ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി നോക്കാം അല്ല നിങ്ങൾ തന്നെ പറഞ്ഞാലും മതി കുഴപ്പമില്ല ഓക്കെ ഡെലിവറി ചെയ്യാൻ പറ്റുമല്ലേ ഓക്കെ ഓക്കെ അങ്ങനെ ആണെങ്കിൽ ഒന്ന് ഡെലിവറി ചെയ്യൂ കേട്ടോ ഞാൻ ഓർഡർ ഞാൻ വാട്സ്ആപ്പ് ചെയ്തു തരാം കുറച്ച് സാധനങ്ങൾ ഉണ്ട് അപ്പം നിങ്ങൾ ഒന്ന് ഡെലിവറി ചെയ്യുമോ ഓക്കെ ഓക്കെ എന്നാൽ ഒന്ന് ഡെലിവറി ചെയ്തേക്കൂ